നമ്മുടെ മാതൃഭാഷയായ മല മലയാള ഭാഷയാണ് മലയാളഭാഷ പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും എല്ലാ കുട്ടികൾക്കും നല്ലത് തന്നെയാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ മാതാപിതാക്കളാരും തന്നെ കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല അവർക്കെല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളോടും മാത്രമേ താൽപര്യം ഉണ്ടാകത്തുള്ളൂ മലയാളം കേരളത്തിൻ്റെ മാതൃഭാഷ തന്നെയാണ് അപ്പോൾ നമ്മൾ പണ്ടുകാലത്ത് ആണെങ്കിൽ എല്ലാ മാതാപിതാക്കളും ആദ്യം തന്നെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനു മുന്നേ തന്നെ അവരെ അക്ഷരം പഠിപ്പിക്കാനായിട്ട് ആശാൻ പള്ളിക്കൂടങ്ങളിൽ വിടുമായിരുന്നു അതുകഴിഞ്ഞ് അങ്കണവാടികളിൽ ഒക്കെ പോയി ആദ്യം തന്നെ മലയാളം അക്ഷരങ്ങൾ ഫുള്ളും നമ്മൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ സ്കൂളുകളിലേക്ക് പോകുക പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും തന്നെ അതിന് മെനക്കെടുന്നില്ല തന്നെയല്ലാ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഏത് സർക്കാർ ജോലിക്ക് ശ്രമിക്കണോങ്കിലും തന്നെയും നമ്മൾ പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിരിക്കണം മലയാളം ഭാഷ പഠിച്ച് സർക്കാർ ഓഫീസുകളിലാണെങ്കിൽ തന്നെ ഫോമുകൾ ഫിൽ ചെയ്യാൻ മറ്റ് നമ്മൾ എന്ത് ആപ്ലിക്കേഷൻ കൊടുക്കാനാണെങ്കിലും തന്നെ മലയാള ഭാഷയിലാണ് അവര് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മലയാള ഭാഷ പഠിച്ചിരിക്കേണ്ടത് നമ്മുടെ സ്വ അക്ഷരങ്ങൾ പഠിക്കുകാന്ന് പറയുന്നത് തന്നെ വളരെ അധികം ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് തന്നെയല്ല മാതൃഭാഷ പഠിക്കുന്നത് വളരെയധികം ആവശ്യമാണ്